ഹലോ പറഞ്ഞോ ഓക്കെ ഓക്കെ ആ ഫോൺ എവിടെ ഓക്കെ ഫോൺ എവിടെ വെച്ചാണ് മിസ്സ് ആയത് ഓക്കെ ഓക്കെ നമുക്ക് ചെയ്യാം ആ എൻ്റെ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞ് തരണം അതിൻ്റെ അപ്പം ആ വണ്ടി ലോക്ക് അല്ലായിരുന്നോ ലോക്ക് അല്ലായിരുന്നു അല്ലേ ഏതാ ഏതാ മോഡൽ എന്ന് പറയുമോ ഫോണിൻ്റെ സാംസങ് ആണല്ലേ അതിനകത്ത് നമ്മളെ എന്തെങ്കിലും വിലപ്പെട്ട ഡീറ്റൈൽസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡേറ്റകൾ ഓക്കെ ആ ആണ് അതെ അതെ അപ്പം ഓക്കെ നമ്മുടെ അ ആ ഒരു നിർത്തി ഇട്ടിരുന്ന സ്ഥലത്ത് ചുറ്റും വല്ല ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നോ ഒക്കെ നമുക്ക് ഇപ്പോൾ ആകെയുള്ള വഴി അത് സൈബർ സെല്ലിൽ കൊടുക്കുക എന്നുള്ളതാ പക്ഷെ നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കുന്നെങ്കിൽപോലും നമുക്ക് ഈ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പറ് വേണം അപ്പം ഐ എം ഇ ഐ നമ്പറ് നമുക്ക് ഈ ഫോൺൻ്റെ കവറുണ്ടോ ഫോൺ മേടിച്ചപ്പോൾ ഉള്ള ഓക്കെ ഐ എം ഐ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ആകെ ചെയ്യാൻ പറ്റിയത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് സൈബർ സെല്ലിലോട്ട് ഒരു എന്താണ് കംപ്ലയിൻറ്റ് അയക്കുക എന്ന് മാത്രമെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ അപ്പം ഓൺ ആണെങ്കിൽ നമുക്ക് എന്താണ് ലൊക്കേഷൻ മോഡ് ഈസി ട്രാക്ക് ചെയ്യാവുന്നതാണ് ആ ഓക്കെ ക്കെ നമുക്ക് ഇപ്പം അപ്പം നമുക്ക് ഇപ്പം ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം അപ്പം എപ്പഴാ സൗകര്യം എന്ന് വച്ചാൽ സ്റ്റേഷനിലോട്ട് ഒന്ന് വരാമോ ഓക്കെ എന്നാൽ സ്റ്റേഷനിലോട്ട് ഒന്ന് വന്നാൽ മതി നമുക്ക് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് എന്താണ് കൊട്ടാരക്കര സൈബർ സെല്ല് ഉണ്ട് അപ്പം കൊട്ടാരക്കര സൈബർ സെല്ലിലോട്ട് നമുക്ക് അത് അയക്കാം ഇല്ലില്ലില്ല നമക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഉള്ളൂ പിന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ നിങ്ങൾ തന്നെ സൈബർ സെല്ലിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം മെയില് ചെയ്യാം മെയില് ചെയ്യുന്ന അല്ലാതെ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് നമുക്ക് ഇവിടന്ന് സ്റ്റേഷനിലൊരു സീലും കാര്യങ്ങളൊക്കെ ഉ ഓക്കെ അങ്ങനെ അയക്കാമെങ്കിൽ അങ്ങനെ അയക്കാം അല്ല നമുക്ക് ആ ഒരു സ്റ്റേഷൻ പരിധിയുടെ ഒരു ഇത് വേണം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇത് വേണം എന്നാലെ സൈബർ സെൽ ഇത് എടുക്കത്തുള്ളൂ അതെ അതെ ഒരു മൂന്ന് മൂന്നര ആവുമ്പഴേക്കും സ്റ്റേഷനിലോട്ട് വരാൻ പറ്റിയെങ്കിൽ അതൊന്ന് സൗകര്യമായിരുന്നു ഓ ഓക്കെ ഓക്കെ അപ്പം ഐ എം എ ഐ എം നമ്പറും ഫോൺ നമ്പറും മാത്രം ഒന്ന് കളക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി

എങ്കിൽ ആധാറുംകൂടെ എടുത്തോ പിന്നെ അവിടെ ചോദിക്കുമ്പം പറഞ്ഞ് കൊടുക്കാം സ്റ്റേഷനിൽ ചോദിക്കുമ്പം പറഞ്ഞാൽ മതി